പ്രാർത്ഥനയെ കുറിച്ചും ആരാധനയെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് നമ്മള് രാവിലെ എണീക്കുക പ്രാർത്ഥിക്കുക ഏകാഗ്രമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക അതിന് കുറച്ച് സമയം നമ്മള് ദൈവത്തിനു നന്ദി പറയുക ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക ദൈവത്തിന് സ്തുതിക്കുക ഇനിയും അവിടത്തെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക പ്പ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികള് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതിന് പ്രധാനമായിട്ട് എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വീട്ടിലുള്ളവരെ കൂടി അതിനോ നമ്മളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു കൊണ്ട് അവരെ കൂടെ പ്രാർത്ഥിക്കാം ശീലിക്കാം പിന്നെ അടുത്ത പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരാധനാലയങ്ങൾ പള്ളികളിൽ പോകാനും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ അതാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് ആരാധനയുടെ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് അതിന് ഈശോയുടെ ജനനം ജനനം മരണം ഉയർത്തെഴുന്നേൽപ്പ് അങ്ങനെ ഈശോയുടെ ജീവിതത്തെ മുഴുവനും അതിൽ നമുക്ക് ധ്യാനിച്ച് ദൈവത്തിന് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെതന്നെ ആരാധനയിൽ പങ്കെടുക്കാം ആരാധനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇതെല്ലാം ദൈവത്തിന് നന്ദിയാണ് ഈ പ്രാർത്ഥനകളെല്ലാം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ബലിയർപ്പിക്കുകയാണ് പറഞ്ഞാൽ നന്ദി അർപ്പിക്കുക ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുള്ള അനവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാം അങ്ങനെ ദൈവത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും നമ്മക്കറിയപ്പെടുന്ന ദൈവത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയെല്ലാം പൂർണമായി തീരുകയുള്ളു അത് നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മളെ സംസാരത്തിൽ കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ നമ്മുടെ നോട്ടത്തിൽ കൂടെ നമ്മുടെ വസ്ത്രധാരണത്തിൽ കൂടെ അങ്ങനെ എല്ലാ വിധത്തിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകൾലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വഴിയും നമുക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ നമ്മുടെ നമുക്കിപ്പം ലോകത്തിന് നാനാഭാഗങ്ങളിൽ പോയൊന്നും ആരേയും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ളവരിൽ നമ്മളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ അവരിൽ കാണുന്നു അതാണ് മദർ തെരേസ ചെയ്തത് കുഷ്ഠരോഗികളിൽ ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുടെ മുഖം ദർശിച്ചു കൊണ്ട് ഈശോയെ സഹായിച്ച് ഒരു പ്രതിഫലത്തിനും വേണ്ടിയല്ല അതുപോലെ നമുക്ക് നമ്മുടെ ഈ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണം നമ്മുടെ സാമ്പത്തികമായിട്ടായാലും പ്രാർത്ഥനയോടുകൂടി ആയാലും പിന്നെ നമ്മുടെ സംഭാഷണത്തിൽ കൂടിയായാലും നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെ ആയാലും നമുക്ക് എല്ലാവിധത്തിലും ദേ ദൈവത്തെ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കണം അങ്ങനെ നമ്മള് സഹായിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മള് സംപ്രീതനാവും അങ്ങനെ ദൈവ ത്തേ ലോകം മുഴുവനും ദൈവത്തെ അറിയുന്നവരുടെ ഇടയിലും ദൈവത്തെ അറിയാത്ത അന്യ മതസ്ഥരിലും ദൈവത്തെ നമുക്ക് നമ്മുടെ ദൈവത്തെ പറഞ്ഞു കൊടുക്കണം അതിനുള്ള കഴിവ് നമുക്കുണ്ടാകണം അങ്ങനെ നമ്മള് ദൈവത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ നമ്മളാൽ ആകർഷിക്കപ്പെടും നമ്മളിലേക്ക് വരും നമ്മളെ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാകും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സംസാരങ്ങളിലൂടെ എല്ലാം അതുപോലെ നമുക്ക് നമുക്ക് ഈ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികള് ചെയ്തുകൊണ്ട് ഒന്നു ഇല്ലങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം നമുക്ക് നമുക്ക് എല്ലാവിധത്തിലും പ്രാർത്ഥനയിൽ കൂടി മാത്രമല്ല പ്രവർത്തനങ്ങളിലൂടെ ചിന്തയിലൂടെ നല്ല നല്ല ചിന്തിക്കുക അതും പ്രാർത്ഥനയാണ് നല്ലത് സംസാരിക്കുക അതും പ്രാർത്ഥന അങ്ങനെ എല്ലാവിധത്തിലും നമ്മക്ക് ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കാനും ദൈവത്തിലവർക്ക് അവർക്ക് ദൈവത്തോട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ആശ്രയിക്കുന്ന പോലെ അവരെയും ദൈവത്തിലേക്ക് ആനയിച്ചുകൊണ്ട് നമുക്ക് ലോകത്തെ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാനും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരിൽ ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കണം അതിന് വേണ്ടി നമുക്ക് നമുക്കാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക സംസാരത്തെ പ്രവർത്തിയെല്ലാം ക്രമപ്പെടുത്തി മുന്നോട്ടു പോകാൻ സാധിക്കും